ഹലോ എങ്ങനെ ഉണ്ട് കുറവ് ഉണ്ടോ ഇപ്പം പനി ഒക്കെ കുറഞ്ഞോ കുറവ് ഉണ്ടല്ലേ തലവേദനയോ

ആ രാവിലെ എന്താണ് കഴിച്ചത് രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഭക്ഷണത്തിന് മുന്നേ ആ എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഷുഗർ ടെസ്റ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം ആ ഒന്നുകൂടെ ചെയ്യണം എന്നാലേ നമുക്ക് ഷുഗർ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ മ് മ് മ് പിന്നെ ഇത് ജലദോഷം തലവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഡോക്ടർ ഇന്നും കൂടെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞത് മ് പിന്നെ ഇപ്പം അധികം പേഷ്യ അതായത് അധികം പേഷ്യന്റിൻ്റെ കൂടെ അധികം ആൾക്കാർ ഒന്നും നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പം ഒരാളെ ഒക്കെ നിർത്തി നോക്കുക കേട്ടോ ആ ഒരാൾ ഒരാൾ നിന്നാൽ മതി പിന്നെ പുറത്ത് അതായത് ഇപ്പം നിപ്പേൻ്റെ ഒരു പ്രശ്നം ഒക്കെ ഇല്ലേ ആ അപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അധികം ആൾക്കാർ മാക്സിമം അതായത് നിങ്ങട കൂടെ ഉള്ളവർ മാസ്ക് ഇടുക നിങ്ങൾ മാസ്ക് ഇടുക എന്തായാലും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കും ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ആവാൻ സാധ്യത ഉണ്ട് അപ്പം കൂടെ ഉള്ളവരോട് പിന്നെ മാസ്ക് ധരിക്കാൻ പറയുക പിന്നെ അധികം ആൾക്കാർ ഒന്നും വരുത്താതിരിക്കുക കാരണം നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പം വീട്ടിൽ പോയി കണ്ടാൽ മതി ഇനി അമ്മയെ ഒക്കെ ശ്രദ്ധിക്കണം പിന്ന മാസ്ക് ധരിക്കണം ആ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം ഒക്കെ മ് പിന്നെ ഫുഡ് മാക്സിമം പുറത്തുനിന്ന് ഒന്നും മേടിക്കാണ്ട് മേടിച്ച് കഴിക്കാണ്ട് ഇരിക്കുക ഇവിടെത്തന്നെ കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇവിടെ നിന്ന് അതായത് ഫുഡ് കഴിക്കാൻ കൊണ്ടുവരണമെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് വരേണ്ടേ അപ്പം അത് ഇല്ലാതിരിക്കുമല്ലോ അപ്പം അതൊന്ന് നോക്കണം കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടോ ഇല്ലല്ലേ ആ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും നാളെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കാം കേട്ടോ ആ അങ്ങനെ ആണ് ഡോക്ടർ പറഞ്ഞത് നാളെ കുഴപ്പം ഒന്നും ഇല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു ഉച്ച ഉച്ചയ്ക്ക് മൂന്ന് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോവാൻ നോക്കാം പിന്നെ അവിടെ പോയിട്ട് മരുന്ന് കഴിച്ചാൽ മതി എന്തായാലും നമുക്ക് ഷുഗറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വിടാൻ പറ്റുള്ളൂ അതാണ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ വരും വൈകുന്നേരം വരും ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണി ആവുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടും അപ്പം ആറ് മണിക്ക് ആണല്ലോ ഡോക്ടറ ടൈം ആ അപ്പം ഡോക്ടർ വരും ആ അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അപ്പം ഒന്ന് ഡോക്ടർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഡിസ്ചാർജ് ആണോ അല്ലയോ എന്ന് അപ്പം അതിന് അനുസരിച്ച് നമുക്ക് നോക്കാം പ്രഷർ ഒക്കെ നോർമൽ ആണ് ഇപ്പം വേറെ പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ ആ ഓക്കെ എന്നാൽ